ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പല രീതിലൊള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് നല്ല രീതീലൊള്ളൊരു വിദ്യാഭ്യാസം കിട്ടാണ്ടായി വരുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിടുന്നൊരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെലവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് എത്തിപ്പെടാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബസിലൊക്കെ നിന്ന് എന്താ പറയുക നീണ്ട നിരയായിട്ട് ക്യൂ നിന്നിട്ട് വേണം ബസിലൊക്കെ കേറിയിട്ട് വരാൻ ചിലപ്പം ബസൊന്നും ഉണ്ടാവൂല്ല പിള്ളേരെ ചിലപ്പം കേറ്റാണ്ടായിട്ട് വരും പിള്ളേരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആരെയും ഇങ്ങനെ പ്രൈവറ്റ് ബസ്സ്കാരും ഇപ്പോൾ കെഎസ്ആർടിസി ബസ്സാണെങ്കിൽ പോലും നമ്മക്കയിനാത്ത് ഫുൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്താലേ നമ്മക്കിവിടെ എത്തുവൊള്ളു ഇപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാർഥികൾക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെയാണ് ഫുൾ ടിക്കറ്റെന്നക്കെ പറഞ്ഞാൽ ചിലപ്പം മുപ്പത്തെട്ടും നാൽപ്പത്തെട്ടും രൂപയാണ് അപ്പം ഒരു വീട്ടിൽ വരുമാനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രേന്നു ഉണ്ടാവൂല്ല അപ്പോൾ ഇപ്പം ഒന്നും രണ്ടും കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്നും ഈ കെഎസ്ആർടിസി ബസ്സിലൊക്കെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളക്കെയാണ് അപ്പോൾ അപ്പോൾ കർണാടക സംസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ വിദ്യാർഥികൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ആണ് കൊടുക്കണത് അപ്പം പല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നേരിടുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലിണ്ടെന്ന് വേണമെങ്കിൽ പറയാം